ആ പ്രീതിയല്ലേ ആ എനിക്കൊരു പാദസരം വാങ്ങിക്കാൻ വേണ്ടി ആയിരുന്നു ഒരു പാദസരം മാറി ആ മാറി വാങ്ങിക്കുന്നതിന് ആ ജ്വല്ലറി വന്ന് മാറി വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ആണ് ആ അതെ അതെ അതേലോ ആ ഹാ ഹാ ആ ആ ഒരു രണ്ട് പവനുണ്ടായിരുന്നു ആ ഇത്തിരി കുറച്ച് തൂക്കം കൂട്തൽ നോക്കാൻ വേണ്ടിയായിരുന്നു ആണല്ലേ നോക്കാൻ വേണ്ടിയായിരുന്നു ഒത്തിരി പൊലിമ വേണ്ട കട്ടി ആ ഉണ്ടാകണം എന്നേ ഉള്ളു പൊലിമ വേണമെന്നില്ല

അത് ആ ആ വ്യത്യാസം വരും ആ ആ ആ ആ

ആ ഹാ ഹാ വ്യത്യാസം വരും അല്ലേ

അത് ആ ഓക്കെ ഓക്കെ നേരിട്ട് വരാം ആ നിങ്ങൾ അവിടെ ഉണ്ടാകുമായിരിക്കുമോ ഉണ്ടാകുമോ ആ ആ ഹാ ആ ആയിക്കോട്ടെ അ ആയിക്കോട്ടെ എടുത്ത് ആ കണ്ടിട്ട് വാ അയച്ച് ഒന്ന് നോക്കാം അത് നോക്കാം ഞാൻ മ് ആ ആയിക്കോട്ടെ ആ അതെ

പണിത് പണിത് തരും അല്ലേ

ആ ആ ആ

പണിത് പണിത് തരും

തരുന്നത് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ വില കൂടിയാലും ആ ഇവിടെ അന്നത്തെ റേറ്റ് അന്നത്തെ റേറ്റ് പവൻ തരും ആ സിറ്റിയിലാണെന്ന് ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആം ആയിക്കോട്ടെ ആ വന്ന് നോക്കിയിട്ട് മോഡലിഷ്ടപ്പെട്ടതാണെങ്കിൽ ആ ഇല്ലെങ്കിൽ ആം

ആ വാ വിളിച്ചേക്കാ വിളിച്ചേക്കാം വിളിച്ചേക്കാം ആ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് വന്നാൽ ആയിക്കോട്ടെ ശരി എന്നാൽ